കായികപരമായിട്ടുള്ള നിയമങ്ങളിൽ പറയുമ്പം മെയിൻ ആയിട്ടും ഇപ്പോഴത്തെ എന്താണ് പറയുക ഈ സമയത്ത് ഫുട്ബോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വിനോദമെന്ന് പറയുന്നത് ഫുട്ബോൾ ആണ് ഫുട്ബോൾ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്പോർട്സ് ഐറ്റം എന്ന് പറയുന്നത് ഈ സ്പോർട്സ് ഐറ്റത്തിൽ ഇപ്പം അനാവശ്യമായിട്ടുള്ള സംഘർഷങ്ങൾ അതുപോലെ തന്നെ അടി ഇടി പിടി ഇതൊക്കെ ഉണ്ടാവാറുണ്ട് വെറുതെ ആവശ്യമില്ലാതെ കളിയുടെ നിയമം തെറ്റിച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ആണിപ്പം ഏറ്റവും കൂടുതൽ ഫുട്ബോളിലുള്ളത് നിയമം തി ത എന്താണ് പറയുക ഒരാളുടെ കയ്യിൽനിന്ന് പന്ത് റിസീവ് ആയി കഴിഞ്ഞാൽ ആ ആളെ എങ്ങനെ എങ്കിലും അടിച്ച് വീഴ്ത്തുകയോ ടാക്കിൾ ചെയ്ത് വീഴ്ത്തുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ആ അവരെ മനപ്പൂർവം തന്നെ ഫൗൾ ചെയ്യുന്ന ഒരു കാ ഒരു ഒരിതിലേക്ക് പ്ലേയേഴ്സ് ഒക്കെ ഇപ്പം ഭയങ്കര റഫ് രീതിയിലാണ് കളിച്ച് വരുന്നത് അതുപോലെ തന്നെ പൊ പുറത്ത് നിന്ന് ആൾക്കാരെ കൊണ്ട് വന്ന് പിന്നെ ഈ സംഘർഷങ്ങളിലൂടെയൊക്കെ ആൾക്കാരെ ഇടയിൽ കയറ്റുക എന്നിട്ട് അവരും ആയിട്ട് ഏറ്റുമുട്ടലുകൾ ഉണ്ടാവുക അതുപോലെ തന്നെ ദേഹോപദ്രവം ചെയ്യുക ഇതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ ഈ സ്പോർട്സിൽ നടക്കുന്നത് കൂടുതൽ ആൾക്കാർ ഇതിന് ഒരു കളി നടക്കുമ്പോൾ അതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിനെടുക്കാതെ അത് എന്താണ് പറയുക വാശിക്കളിയായിട്ട് മാറുവാണ് അതാണ് ഇപ്പോഴത്തെ ഈ ഒ മിക്കപ്പോഴത്തെയും മിക്ക സ്ഥലങ്ങളിലും നടക്കുന്നത് അത് പുറത്തുനിന്ന് വരുന്ന പ്ലയേഴ്സിന് അതൊരുപാട് എന്താണ് പറയുക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെ ആണ് അതുകൊണ്ട് ഇപ്പം നമ്മൾ നിയമം നിയമം അനുസരിച്ച് ഒരു പ്ലയേഴ്സും അല്ലെങ്കിൽ ഒരു കളിയും ഇപ്പം നടക്കുന്നില്ല പിന്നെ അത് നല്ല രീതിക്കുള്ള റഫറിങ് നല്ല രീതിക്കുള്ള നിയമം ക ആദ്യം തന്നെ പ്ലയേഴ്സിനോട് ഇതൊക്കെ പറഞ്ഞ് കൊടുക്കുക ഇങ്ങനെയാണ് അതുകൊണ്ട് സോ ഇതെല്ലാം ക കളി കളിയുടെ രീതിയിലായിട്ട് എടുക്കാൻ പഠിക്കുക അതുകൊണ്ട് റെഫറി പറയുന്നത് മാത്രം അന്തിമ തീരുമാനമായിട്ടെടുക്കുക അല്ലാതെ പ്ലയേഴ്സ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അതിനെ ഒരിക്കലും ഒരു കളിയായിട്ട് നമുക്കെടുക്കാൻ പറ്റത്തില്ല കാരണം ഒരു ഒരു കാ ഒരു സ് കളിയെന്ന് പറയുമ്പോൾ അതിന് അതിൻറ്റേതായിട്ടുള്ള ഒരു രീതികളും നിയമങ്ങളും അനുസരിച്ച് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ലംഘിച്ച് കളിക്കുന്ന ഒരാളെ ഒരിക്കലും നമ്മളൊരു പ്ലയർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല ഒരു ബെസ്റ്റ് പ്ലയർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല എല്ലാ ഇതിപ്പം എല്ലാ കാര്യത്തിനും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കുന്ന ഒരാളായിരിക്കണം ഏതൊരു നല്ല പ്ലയറും ആ രീതിക്കാണ് അല്ലെങ്കിൽ ഒരു കളിക്ക് ഒരു കളി ആവുമ്പോൾ ഇപ്പം ഫുട്ബോൾ എന്നുള്ളതല്ല ഒരു കളിയാവുമ്പോൾ എല്ലാ കളിക്കും അതിൻറ്റേതായിട്ടുള്ള നിയമ വശങ്ങളുണ്ട് ആ നിയമവശങ്ങൾ അനുസരിച്ച് കളിക്കുന്ന ഒരാളെ മാത്രമേ നമുക്കൊരു ബെസ്റ്റ് പ്ലയർ ആയിട്ട് പറയാൻ പറ്റൂള്ളൂ